വിത്തുകളിൽ നിന്നും ചെടികളിൽ നിന്നൊക്കെയായിട്ട് നമ്മൾ പിന്നെയും ചെടികൾ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട് വിത്തുകളിൽ നിന്നാണ് കൂടുതലായിട്ടും ചെടി ഉണ്ടാക്കാനായിട്ട് നോക്കിയിട്ടുള്ളത് അതായത് പയർ വർഗ്ഗങ്ങളും അതുപോലെ തന്നെ വെണ്ടയ്ക്ക വഴുതനങ്ങ പിന്നെ തക്കാളി പോലെയുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ വിത്ത് കുഴിച്ചിട്ടതിൽ നിന്ന് ചെടി ഉണ്ടായിട്ട് നമ്മൾ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ചെയ്തിട്ടുള്ളത് ഈ പറഞ്ഞത് പോലെ സപ്പോട്ട പോലെ ഉള്ള പഴവർഗ്ഗങ്ങളെല്ലാം അത് കുരു കുഴിച്ചിട്ടിട്ട് മുളച്ച് നല്ലൊരു ചെടിയാവുമ്പോൾ അതിനെ മാറ്റി വെച്ച് ഒന്നും കൂടി പരിപാലിച്ചിട്ടൊക്കെ ചെടിയായിട്ട് നമ്മൾ വളർത്തിയിട്ടുണ്ട് പിന്നെ പ്രചരണം ചെയ്യുന്നത് വെട്ടിയെടുത്ത കഷ്ണങ്ങളിൽ നിന്നുള്ളത് വളരെ കുറവാണ് കാരണം അങ്ങനെ ജാതി ഒക്കെ നമ്മൾ എന്താണ് പറയുക ബഡ്ഡ് ചെയ്യാനായിട്ട് നോക്കിയിട്ട് അത് പറ്റാതെ വന്നിട്ടുണ്ട് കാരണം ചീഞ്ഞ് പോവുക ചെയ്തത് ശരിയല്ലാതെ ആവുക അങ്ങനെയൊക്കെ ആയിട്ട് അതിൽ കുറച്ച് ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പം അതിന് ശേഷം അങ്ങനെ വെട്ടിയെടുത്തിട്ടുള്ള കഷ്ണങ്ങളിൽ നിന്ന് ചെയ്യാൻ നോക്കിയിട്ടുള്ളത് വളരെ കുറവാണ് പക്ഷേ വിത്തുകളിൽ നിന്ന് നമ്മൾ ധാരാളം ചെടികൾ നമ്മൾ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിൽ നിന്നെല്ലാം കായ്ച്ചിട്ട് അതിൻ്റെ കായ്ഫലങ്ങൾ കിട്ടിയിട്ടുണ്ട് ധാരാളമായിട്ട് അപ്പം അത്തരത്തിലാണ് വിത്തുകളിൽ നിന്നും ചെടികളിൽ നിന്നൊക്കെ നമ്മൾ പ്രജനനം ചെയ്യാനായിട്ട് നോക്കിയിട്ടുള്ളത് എന്നിട്ട് അത് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വളരെ എന്താണ് പറയുക സന്തോഷമാണ് മനസ്സിനും കാണുമ്പോൾ നമുക്കൊരു സന്തോഷം നമ്മൾ ആയിട്ട് വളർത്തി ഉണ്ടാക്കിയത് കഷ്ടപ്പെട്ടിട്ട് വളർത്തി ഉണ്ടാക്കിയ ചെടി എന്ന് കാണുമ്പോൾ അതിൽ നിന്ന് പ്രത്യേകിച്ച് ഈ പയർ വർഗ്ഗങ്ങൾ എന്നൊക്കെ പയർ ഉണ്ടായിട്ടും ഒക്കെ കാണുമ്പോൾ ആണ് കുറച്ചും കൂടെ അധികം സന്തോഷം നമുക്ക് ലഭിച്ചിട്ടുള്ളത്